അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതും സംരക്ഷിക്കപ്പെടേണ്ടുന്നതുമായ ചില ഇന്ത്യൻ കലാരൂപങ്ങൾ ധാരാളമുണ്ട് എങ്കിലും നമ്മുടെ അറിവിൽ കഥകളി ഓട്ടംതുള്ളൽ ഇതെല്ലാം നമ്മുടെ നാട്ടിൽനിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളാണ് ഈ കലാരൂപങ്ങൾ പണ്ടുകാലത്ത് അമ്പലങ്ങളിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കലാരൂപങ്ങളായിരുന്നു പക്ഷെ അവയൊക്കെ കാണാൻ ധാരാളമാളുകൾ ആസ്വദിക്കാനും വന്നെത്തിക്കൊണ്ടിരുന്നു ഇവയുടെ അഭിനയ അഭിനയങ്ങളും കഥാപാത്രങ്ങളും ജനങ്ങളുടെയിടയിൽ ഇഴുകിച്ചേരാൻ ഇന്ന് കഴിയാതെ പോകുന്നു അത് ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നു മറ്റുള്ളവരുടെയിടയിൽ ജനകീയമായിട്ടിരിക്കുന്ന കലകൾ മങ്ങലേൽക്കുകയാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത് ഇവയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായികൊണ്ടിരിക്കുന്നതുമായ കലാരൂപങ്ങളാണ് പണ്ടുകാലത്ത് വള്ളത്തോൾ നാരായണമേനോൻ കഥകളി എന്ന കലാരൂപത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്നെങ്കിലും അന്ന് എല്ലാവരും ഒരുപോലെ ആസ്വദിച്ചിരുന്ന ഒരു കലാരൂപമായിരുന്നു ഇന്ന് മീഡിയകളുടേയും മറ്റും കടന്നുകയറ്റംമൂലം എല്ലാവർക്കും സിനിമ സിനിമ തുടങ്ങിയ മാധ്യമങ്ങളെയൊക്ക ആസ്വദിക്കാനുള്ള മാധ്യമങ്ങളിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അവരവരുടെ മനസ്സുകൾ ആസ്വദിക്കാനുള്ള കഴിവ് ഇന്ന് മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവയുടെ സംരക്ഷണം അത്യാവശ്യമാണ് പുതുതലമുറയ്ക്ക് അവർ എങ്ങനെയാണ് ഇതിന്റെ ശൈലികളും രൂപങ്ങളും ഭാവങ്ങളും ഇതിലെ കഥാപാത്രങ്ങളും കൂടുതൽ അഭിനയരീതികളിലൂടെയായിരുന്നു ഈ രൂപങ്ങളൊക്കെ നൽ പണ്ടുകാലത്ത് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇന്നത് അന്യംനിന്നുപോയ കലാരൂപങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വിരൽത്തുമ്പിൽ കാണാൻ കഴിയുന്ന മറ്റ് സിനിമാ സിനിമാ പോലെയുള്ള സിനിമകൾ പോലെയുള്ള മാധ്യമങ്ങൾ മാധ്യമങ്ങളെയാണിപ്പോൾ ആളുകൾ കൂടുതലും ആശ്രയിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും ആസ്വദിക്കാൻ കഴിയുന്നതുമായ ഒരു മേഖലയായി മാറിയിരിക്കുന്നു സിനിമാലോകം അപ്പോൾ നമുക്ക് ഇന്ന് പൂരപ്പറമ്പുകളിലൊക്കെ അഗ്നിച്ച് നമ്മുടെ മുന്നിൽ പുരാണകഥാപാത്രങ്ങളെ അഭിനയിപ്പിച്ച് നമ്മുടെ മുന്നിൽ കാണിച്ചിരുന്ന കഥകളിയും മറ്റ് കലാരൂപങ്ങളുമെല്ലാം ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട കലാരൂപങ്ങളാണ് പുതുതലമുറക്ക് അന്യംനിന്ന് പോകുന്ന ഒരു കലാരൂപംകൂടിയാണ് നമ്മളിന്ന് കാണാൻ കഴിയുന്നത് ഇവയെല്ലാം സംരക്ഷിക്കേണ്ടുന്നത് ഇന്നത്തെ തലമുറയുടെ ആവശ്യമാണ്